ആ പറഞ്ഞോളു അതേ പറഞ്ഞോളു ആണോ ഓക്കെ ഓക്കെ അത് എത്ര മണിക്ക് ഓ ശരി എത്ര മണിക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് വേണോ എങ്ങനെയാണ് ഓക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് വരണോ കാരണം നമുക്ക് രണ്ട് രീതിയിലുള്ള സർവീസും അവൈലബിൾ ആണ് അതായത് വീട്ടിൽ വന്ന് ചെയ്യാനും പറ്റും അല്ലെങ്കിൽ അത് നമ്മുടെ ആ കാർ സർവീസ് സെൻ്ററിൽ കൊണ്ട് വന്നാലും ചെയ്ത് തരാൻ പറ്റും എങ്ങനത്തെ ഒരു ഇതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് ചെയ്യാച്ചാ നിങ്ങൾ നമ്മുടെ ഇവിടെ വന്ന് ചെയ്യുകയാണെങ്കിൽ ആ നമുക്ക് എന്താണ് പറയുക കുറച്ചു കൂടി ഒരു ആ പെട്ടെന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റേണ്ടതാണ് കാരണം അധികം വണ്ടികളൊന്നുമില്ല ഇവിടെ അപ്പോൾ ഞാൻ വേണമെങ്കിൽ അത് ആ പെട്ടെന്ന് ചെയ്ത് തരാം ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ എത്തുകയാണെങ്കിൽ ഞാൻ ഒരു മണിക്കൂറിനുള്ളിൽ തീർക്കാം അപ്പം നിങ്ങൾക്ക് ഒരു ഒരു മണിയാകുമ്പോൾ ഒന്ന് ഒന്നരയാകുമ്പോൾ വരാൻ പറ്റുകയാണെങ്കിൽ രണ്ടരയ്ക്ക് മുൻപായിട്ട് തീർത്ത് തരാൻ പറ്റും നമുക്ക് ആ നമുക്ക് പല രീതിയിലുള്ള സർവീസുകൾ അവൈലബിൾ ആണ് അതായത് ഒന്ന് നമുക്ക് വണ്ടി പുറത്ത് നിന്ന് വാഷ് ചെയ്ത് ഫോം വാഷ് ചെയ്ത് ഇറക്കും പിന്നെ അതല്ല ഇതിൻ്റെ മുകളിൽ വാക്സ് പോളിഷ് ചെയ്യാറുമുണ്ട് നമ്മൾ വണ്ടി നല്ല തിളക്കമുണ്ടാവും കാണുമ്പോൾ നല്ല തിളക്കമുണ്ടാവും പിന്നെ അകത്തുള്ള കാര്യം ബേസിക്കായിട്ടുള്ള വാക്വം ക്ളീനാണ് നമ്മൾ പൊതുവേ ചെയ്യാറ് വാക്യും ക്ലീൻ ചെയ്യും പൊടിയെല്ലാം കളയും പിന്നെ അകത്തുള്ള മാറ്റൊക്കെ ഒന്നെടുത്ത് പുറത്തെടുത്ത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് പതിവ് കുറച്ച് കൂടെ ഡീപ് ക്ലീനിങ്ങ് വേണെ അകത്ത് ചെളി പോലത്തെ കാര്യം ചെളിയായിട്ടും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കൊരു ഇതുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഒന്ന് ഡീപ് ക്ലീൻ ചെയ്തത് നല്ലോണം ഉരച്ച് കഴുകി ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഏസി വെഞ്ചിനകത്തുള്ള പൊടിയും ക്ലീൻ ചെയ്യാനുള്ള സൗകര്യം നമുക്കുണ്ട് അപ്പോൾ അതും പല രീതിയിലുള്ള സൗകര്യങ്ങൾ ഇതാണ് നമുക്കുണ്ട് അപ്പോൾ എങ്ങനത്തെ രീതിയിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഡീപ് ക്ലീനിങ്ങ് വരുമ്പോൾ നമുക്ക് ഒരു ബേസിക്ക് വണ്ടിക്ക് അത് നിങ്ങളുടെ ഏതാണ് വണ്ടി ഓക്കെ അപ്പം ആ ഒരു വണ്ടിക്ക് നമുക്ക് ഒരു ഏകദേശം ഡീപ് ക്ലീനിങ്ങിൻ്റെ ആയിരത്തി അഞ്ഞൂറ് രൂപ അടുപ്പിച്ച് വരും ഡീപ് ക്ലീനിങ്ങ് സൗകര്യം എടുക്കുക ആണെങ്കിൽ അതിൻ്റെ കൂടെ വാക്യൂമും ബാക്കിയുള്ള നോർമ്മൽ ക്ലീനിങ്ങും കൂടി അതിൽ ഇൻക്ളൂഡഡ് ആയിരിക്കും അതായത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മൊത്തം ക്ലീൻ ചെയ്ത് കിട്ടും വണ്ടി അകത്ത് ഉള്ളത് പിന്നെ പുറത്തുള്ള ആ അത് തീരും തീരും ഇപ്പോൾ എത്തി കഴിഞ്ഞാൽ എനിക്ക് അത് നിങ്ങൾക്ക് ഒരു മണിക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു രണ്ട് മണി ആവുമ്പത്തേന് വണ്ടി തിരിച്ച് കൊണ്ട് പോകാം പുറത്തുള്ള വാഷിന് എക്സ്ട്രാ ഒരു അഞ്ഞൂറും പോളിഷിനൊരു മുന്നൂറ്റി അൻപത് രൂപ അപ്പം എണ്ണൂറ്റി അൻപതും ആയിരത്തി അഞ്ഞൂറും രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ ഏകദേശം വരികയുള്ളു പിന്നെ അപ്പോൾ ആ നിങ്ങൾ അപ്പോൾ രണ്ടര ആകുമ്പത്തേക്കും എത്തില്ലെ ഓക്കെ ശരി എന്നാൽ ഓക്കെ വിളിച്ചാൽ മതി